സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം എപ്പോഴാണ് വരിക എത്ര ദിവസത്തെ ലീവുണ്ട് എവിടേക്കാണ് പോകുന്നത് നാളെ കാണാട്ടൊ ശരിന്നാല് വേഗം വരണെ ഇഷ്ടമായോ നല്ലത് വേഗം വളരെ കൊള്ളില്ല